ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ താല്പര്യാനുശ്രുതമായിട്ടാണ് ഓരോ വിഭവങ്ങളും ഉണ്ടാക്കാറുള്ളത് കാരണം അത് അവർക്ക് ഇഷ്ടമായിട്ടില്ലായെങ്കിൽ പിറ്റേദിവസം കളയേണ്ട ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെകൊണ്ട് കഴിയുന്ന രീതിയിൽ പാചകം ചെയ്യാറാണ് പതിവ് ആ പാചകവിഥികൾ ഞാൻ ചിലതെല്ലാം അതേപോലെ അനുസരിക്കാറുണ്ട് അതിനുശേഷം മറ്റുള്ളവരുടെ ആവശ്യങ്ങളുംകൂടി പരിഗണിച്ച് എന്റേതായ രീതിയിലും അവരുടെ ആ ഒരു ആവശ്യത്തിൻ്റെ രീതിയിലും ഞാൻ നല്ലരീതിയിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനുശേഷം എല്ലാദിവസും എൻ്റെ ആഗ്രഹങ്ങളിലുപരി മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളുംകൂടി പരിഗണിച്ച് ഒപ്പം എൻ്റെ ആഗ്രഹങ്ങളുംകൂടി നിറവേറ്റിക്കൊണ്ടാണ് ഞാൻ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഏതൊരു ഭക്ഷണമായാലും അതിന്റേതായ രുചിക്കും അതുപോലെതന്നെ അതിന്റേതായ ഗുണത്തിലും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്